ഇന്ത്യയിലെ സംസ്ഥാനമായ കേരളത്തിലെ ഒരു പ്രധാന ഉത്സവമാണ് ഓണം ഓണം മഹാബലിയുടെ തിരിച്ചു വരവായി നമ്മൾ ആഘോഷിക്കുന്നതാണ് ഓണത്തിന് കുറെയധികം സവിശേഷതകളുണ്ട് നമ്മൾ തനതായ തനതായ വേഷങ്ങളിട്ട് ഫെസ്റ്റീവ് ഡ്രെസ്സുകളിട്ട് പട്ടുപാവാടയും സാരിയും മുണ്ടും ഷർട്ടും മറ്റും ഇട്ട് വളരെ സന്തോഷത്തോടെ സദ്യയിൽ ഒന്നിച്ച് കുടുംബവുമായിട്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ഓണത്തിന് നമ്മൾ ഓണത്തിൻ്റെ പ്രധാന കാര്യം എന്തെന്ന് വെച്ചാൽ സദ്യയാണ് ഒരുപാട് വിഭവങ്ങളായി രണ്ടുമൂന്നു കൂട്ടം പായസങ്ങളായി ഇഞ്ചിപ്പുളി നൂറ്റൊന്ന് കറികൾക്ക് പകരമായി ഇഞ്ചിപ്പുളി മുതൽ തൊട്ട് പപ്പടം കൂട്ടി ചോറ് കഴിച്ച് അതാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാര്യം ഓണത്തിൻ്റെ സദ്യയിൽ കുറെയധികം വിഭവങ്ങളുണ്ട് പുളിശ്ശേരി എരിശ്ശേരി കാളൻ ഓലൻ തോരൻ കൂട്ടുകറി ഇഞ്ചിപ്പുളി അച്ചാറ് ചോറ് സാമ്പാറ് രസം അങ്ങനെ തുടങ്ങി രണ്ടു കൂട്ടം പായസം പാലടപ്പായസം അടപ്രഥമൻ അങ്ങനങ്ങനെങ്ങനെ പപ്പടം അങ്ങനെ പല പല സാധനങ്ങളും ഉണ്ട് നമ്മുടെ ഓണത്തിന് അങ്ങനെ നമ്മൾ വിഭവ സമൃദ്ധമായ സദ്യ കഴിച്ച് നമ്മൾ മഹാബലിയുമായിട്ട് ഓണം ഓണപ്പാട്ടും ഓണത്തല്ലും വടംവലി വടംവലി ഓണത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കലാരൂപമാണ് വടം വലിയെ നമ്മൾ ഭയങ്കര ആഘോഷത്തോടെ ആർപ്പുവിളിയോടെ നമ്മൾ കൊണ്ടുനടക്കുന്ന ഒരു കായിക ഇനമാണ് ഓണ സമയത്ത് രണ്ടു കൂട്ടർ ആ ഇരുവശങ്ങളിലായി നിന്ന് വടം അത്രയും ശക്തിയോടെ വലിച്ച് അങ്ങനെ നമ്മൾ അർമാദിക്കുന്ന ദിവസമാണ് ഓണം അങ്ങനെയുള്ള വേറൊരു കേരളത്തിലെ മറ്റൊരു ഉത്സവമാണ് വിഷു വിഷു എന്താന്ന് വെച്ചാൽ പടക്കങ്ങളുടെ ഉത്സവമാണ് വിഷു വിഷുവിന് നമ്മൾ പടക്കം രാവിലെ കണി കാണുന്നു കൃഷ്ണനെ കണി കാണുന്നു കാണുന്നു കൈനീട്ടം മേടിക്കുന്നു കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായ ഒന്നാണ് കൈനീട്ടം മുതിർന്നവരിൽ നിന്നും പൈസ കിട്ടുന്നു അവർക്കത് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ വിഷുവിന് നമ്മൾ രാവിലെ കണി വെക്കുമ്പോൾ തന്നെ പടക്കം പൊട്ടിക്കലാണ് വിവിധ തരം പടക്കങ്ങളാണ് ചെറുതും വലുതും ഓല പടക്കം ടമാർ പടാർ പടക്കങ്ങളാണ് അത്രയും പടക്കങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പടക്കങ്ങൾ പൊട്ടിക്കുക അങ്ങനെ വളരെ നല്ല ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഉത്സവങ്ങളാണ് വിഷുവും ഓണവും കേരളത്തിലെ ആണ് കേരളത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുക എങ്കിൽ പോലും ഓണമൊക്കെ കേരളത്തിന് പുറത്തുള്ള വിദ്യാർഥികളും മറ്റു കോളേജുകളിലേയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർഥികൾ വളരെ മനോഹരമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത് എല്ലാവരും ഒന്നായി കണക്കാക്കുന്ന ജാതി മത ഭേദമന്യേ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഒന്നാണ് ഓണം അതുപോലെ തന്നെയാണ് വിഷുവും പിന്നെ നമ്മുടെ കേരള ഇന്ത്യയിലെ ഏറ്റവും നല്ല ഉത്സവം എന്ന് പറഞ്ഞാൽ ഹോളി ദീപാവലി ദീപാവലി ദീപങ്ങളുടെ ഉത്സവം അല്ലേ എന്നാണ് എല്ലാവരുടെയും ദീപങ്ങൾ കത്തിച്ച് വെച്ച് സ്വീറ്റ്സും മധുര പലഹാരങ്ങളെല്ലാം വിതരണം ചെയ്തു നമ്മളത്രയും അടിപൊളിയായിട്ട് കാണുന്ന ഒന്നാണ് ദീപാവലി അങ്ങനെ അങ്ങനെ പല പല ഉത്സവങ്ങൾ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടാടി വരുന്നു ഇനിയും കൊണ്ടാടുന്നു വളരെ മനോഹരമായ കാര്യങ്ങൾ